ആ ഹലോ ഇത് ജോജോന്ന് പറയുന്ന ഗൈഡല്ലെ അ ഞാനേ ഈ ഇത് നമ്മൾ ഇവിടെ കേരളത്തിൽ തെക്കൻ ഭാഗങ്ങളിന്ന് വന്നൊരാളൊരു ടൂറിസ്റ്റ് ആയിരുന്നു അപ്പം എനിക്ക് ഞാൻ അപ്പം ഞാൻ വിളിച്ചത് താങ്കൾക്ക് ഇവിടത്തെ തെങ്ങിനെ കുറിച്ചും തെങ്ങിൻ്റെ കൃഷിയെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായി അറിവുണ്ടെന്ന് ഇങ്ങനെ ഒരാൾ പറഞ്ഞത് കേട്ട് ഞാൻ വിളിച്ചതാണ് അപ്പം എനിക്ക് അതിനെ കുറിച്ചൊന്ന് പറയാവോ ആ കൃഷി ചെയ്യുന്ന രീതികളും പിന്നെ അതിൻ്റെ എന്താണ് നമുക്കെങ്ങനെ അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഗുണങ്ങളെന്നൊക്കെ ഒന്ന്

ആ അപ്പം ഓക്കെ ഓക്കെ

ഓക്കെ ഇത് അപ്പം ഇത് ഇന്ന കാലാവസ്ഥയായിൽ മാത്രമേ ഇത് കായ്ക്കൾ വരോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതേകത ഉണ്ടോ ആ ഓക്കെ ഓക്കെ ഓക്കെ ഈ മറ്റേ സസ്യങ്ങൾക്ക് വരുന്ന അസുഖങ്ങളൊക്കെ ഇതിന് എങ്ങനെയാണ് ഓ ഓക്കെ ഓക്കെ അപ്പം ഈ എ അ ആണല്ലേ ഞാൻ ഈ ആലപ്പുഴ സൈഡിൽ പുന്നപ്ര ചെറിയ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോണമെന്നാണ് ആലോചിക്കുന്നത് ആ ഓക്കെ ഈ കടൽ ഈ കടൽ മണൽ ആയിട്ട് ഇത് പ്രശ്നമുണ്ടാവോ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം അതായത് ആ ഓക്കെ അപ്പം സാറെ എനിക്ക് അറിവ് തന്നതിന് നന്ദി ഓക്കെ